ഞങ്ങളുടെ പ്രദേശത്ത് സാംസ്കാരികമായിട്ടുള്ള ഐഡൻ്റിറ്റിക്ക് വേണ്ടി സത്വത്തിന് വേണ്ടി പാരമ്പര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മൂല്യം നൽകുന്ന ഒന്ന് ഞങ്ങളുടെ തൃശ്ശൂർ പൂരം തന്നെ അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കാരണം തൃശ്ശൂർ പൂരത്തിലാണ് ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലുള്ള കരകൗശല വസ്തുക്കളും അതേപോലെ തൃശ്ശൂർ താമസിക്കുന്ന തൃശ്ശൂർ വസിക്കുന്ന എല്ലാവരുടെയും ആ ഒരു കരകൗശല വിദ്യകളും അവരുടെ ഒരു പാരമ്പര്യവുമാണ് അതിൽ കാണിക്കുന്നത് തൃശ്ശൂർപൂരം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതിലൂടെ തന്നെ ഈ കുടമാറ്റവും ഈ കുടമാറ്റത്തിനുണ്ടാക്കുന്ന ഈ കുട അതേ പോലെ പുലിക്കളിയും പുലിക്കളിയൊക്കെ തൃശ്ശൂർ ജില്ലയിൽ വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്നൊരു കലയാണ് അതിൻ്റെ ഒക്കെ പുറകിൽ ഒരുപാട് കരകൗശലം ചെയ്യുന്ന ആൾക്കാരും അവരുടെ കഠിന പ്രയത്നമൊക്കെ കാണാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചിഹ്നങ്ങളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ ജില്ലയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രദേശത്തെ അത്രയും വലിയ ഒരു പാരമ്പര്യം ചൂണ്ടി കാണിക്കുന്ന ഒന്നാണ് ഇവിടെയുള്ള ഓരോ കെട്ടിടങ്ങളും അതേ പോലെ ഒരുപാട് കരകൗശലവസ്തുക്കൾ ഇപ്പം തന്നെ മുളവടി കൊണ്ടുള്ളതും ആറന്മുള കണ്ണാടികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കരകൗശല വസ്തുക്കളായി നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്